ഇന്ത്യയിൽ സൈക്കിളിൽ പോയിട്ട് ഇതുവരെ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടില്ല പിന്നെ ആഗ്രഹം ഉണ്ട് ആഗ്രഹം ഇല്ലാത്ത മനുഷ്യരുണ്ടാകില്ലല്ലോ ഇന്ത്യയിൽ ഒരു നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയി സൈക്കിളിൽ പോയി ഇങ്ങനെ സ്ഥലങ്ങൾ കാണണം എന്നുള്ളത് അതുപോലെത്തന്നെ ഇന്ന സ്ഥലമെന്നൊന്നില്ല ഇന്ത്യയിലും ഒട്ടുമുക്ക സ്ഥലങ്ങളിലും പോണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ പോകണ കാണുമ്പം നമുക്ക് ആഗ്രഹം ഉണ്ടാകും ഇങ്ങനെ പോകണം സന്ദർശിക്കണം എന്നൊക്കെ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇന്ത്യയിൽ എന്നല്ല പുറത്തായാലും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഒട്ടുമിക്ക അറിയപ്പെടുന്ന സ്ഥലങ്ങളും കാണാൻ പോകണം എന്നാണ് ആഗ്രഹം അത് ഇന്ന സ്ഥലം എന്നൊന്നില്ല അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊന്നു കാണാൻ പോകണം എന്ന് ആഗ്രഹം ഉണ്ട്